നൃത്തരൂപങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധയാർജ്ജിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ നമ്മുടെ നാടെടുത്താലും അല്ലെങ്കിൽ പുറം നാടെടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ എല്ലാവരും ആസ്വദിക്കുന്നതും അതല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നതുമായുള്ളൊരു കാര്യമാണ് നൃത്തരൂപങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ വിവിധ തരം കലാരൂപങ്ങളാണ് നമ്മുടെ നാടുകളിലുള്ളത് ഇപ്പോൾ നമ്മുടെ കേരളമെടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നൃത്ത രൂപങ്ങളുണ്ട് അതല്ലെങ്കിൽ കേരളത്തിന് പുറമെ ഇന്ത്യയിലെടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വിവിധ കൺട്രികളിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നൃത്തരൂപങ്ങൾ ഓരോ സ്ഥലത്തുമുണ്ട് എന്നാൽ പുതിയ പുതിയ നൃത്ത രൂപങ്ങൾ നമ്മുടെ രാജ്യത്തു നിന്നും അതേപോലെത്തന്നെ വിവിധ വിവിധ കൺട്രികളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട് അപ്പോൾ നമ്മുടെ കുച്ചുപ്പുടി എന്ന് കേട്ടിട്ടുണ്ട് ആ കുച്ചുപ്പുടി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കേരളത്തിലുള്ളതല്ല പക്ഷെ പലരും ഇന്നേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കളിക്കുന്നതുമായിട്ടുള്ള നൃത്തരൂപമാണ് കുച്ചുപ്പുടി എന്ന് പറയുന്നത് അതുപോലെ മണിപ്പൂരി അതുപോലെ പല കലാ രൂപങ്ങളും നമ്മുടെ കേരളത്തിൻ്റെ പ്രാചീന കലാരൂപമല്ലെങ്കിലും പുറമെ നിന്നും എന്ത് ചെയ്യാറുണ്ട് കേരളത്തിലോട്ട് വരാറുണ്ട് അത് പ്രാചീന കലാരൂപങ്ങളോടൊപ്പം തന്നെ എന്ത് ചെയ്യാറുണ്ട് വളരാറുമുണ്ട്